ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ പിന്നെ എന്റൊരു മാല പിന്നെ കള കളവ് പോയായിരുന്നു അപ്പോൾ അതിന് കംപ്ലൈൻറ്റ് തരാൻ വേണ്ടി വന്നതായിരുന്നു രണ്ട് ദിവസമായി അത് വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്ന് പിന്നെ നമ്മള് അലമാരിയില് എടുത്തു വെച്ചതായിരുന്നു അപ്പോൾ പിന്നെ കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ ഇവിടെ തപ്പി പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരാള് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ

ആ അവരെയാണ് ഡൗട്ട് ആ മാലേൻ്റെ ഫോട്ടോയുണ്ട് ഒരു താര മാലയായിരുന്നു ഒരു മൂന്നര പവൻ ഉണ്ടായിരുന്നു താലിയുണ്ടായിരുന്നു താലിമാല ആയിരുന്നു അത് ഞാൻ പിന്നെ ഊരി വെച്ചിട്ട് കിടന്നതായിരുന്നു പഴക്കം ഒരു എൻ്റെ കല്യാണ സമയമായിട്ട് ഒരു പതിനെട്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്

ആളെക്കുറിച്ച് വീടിൻ്റെ അടുത്താണ് സന്തോഷെന്നാണ് പേര്

അവര് ഈ പിന്നെ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് അപ്പോൾ അവരന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാന് അഴിച്ച് രാത്രി എൻ്റെ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കാൻ വന്നതാണ് അപ്പം ഞാനിങ്ങനെ അഴിച്ച് മേശയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവര് പോയ് പോയി കഴിഞ്ഞശേഷമാണ് ഞാൻ ഇടാൻ വേണ്ടി നോക്കുമ്പോൾ അത് അവിടെ കാണുന്നുണ്ടായിരുന്നില്ല അതെ വീടിൻറ്റ അടുത്താണ് ഇല്ല അദ്ദേഹം അറിഞ്ഞു പക്ഷേ അവര് ഇങ്ങോട്ട് ചോദിക്കാനൊന്നും വന്നില്ല അപ്പം ഒരു ഡൗട്ട് ഇല്ല അങ്ങനെ സംസാരിച്ചില്ല ചോദിച്ചായിരുന്നു കണ്ടായിരുന്നോ എന്ന് ചോദിച്ചുള്ളൂ അങ്ങനെ ചോദിച്ചുള്ളു പിന്നെ എന്തായാലും ഒരു ഡൗട്ട് അയാള് മാത്രമാണ് അത് പറഞ്ഞു എന്നെ ഉള്ളൂ മാം അത് കംപ്ലൈൻറ്റ് അതെ അതെ അദ്ദേഹം വൈകുന്നേരം എന്തായാലും ഒരു ഏഴ് മണിക്ക് ശേഷം വീട്ടിലുണ്ടാവും ആ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ ശരി